ഇപ്പോൾ കേരളത്തില് ജില്ലകളില് ഒരുപാട് ആരാധനാലയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ഒരു ഹിന്ദു മതക്കാരനാണ് അപ്പോൾ ഹിന്ദു മതത്തിൽത്തന്നെ ഒരുപാട് ആൾക്കാര് ഇപ്പോൾ കേരളത്തിലുണ്ട് പോരാത്തതിന് ഇപ്പോൾ നമ്മുടെ ജില്ലേല് കോഴിക്കോട് ജില്ലയിലിപ്പോൾ വരുന്നത് കൂടുതലും എന്താ പറയുക ഹിന്ദുക്കള് മാത്രല്ല മുസ്ലിംസുണ്ട് ക്രിസ്ത്യൻസുണ്ട് അങ്ങനെ ഒരുപാട് ജാതിയിൽ പെട്ടവര് ഇപ്പൊത്തന്നെ കോഴിക്കോട് ജില്ലയിലും ഉണ്ട് അപ്പോൾ ഇവരെ ഇവരുടെ കുറെ ഒരുപാട് ഇപ്പോൾ പള്ളിക്കാർക്കൊക്കെ ആണെങ്കി ഈസ്റ്ററ് കാര്യങ്ങള് പള്ളിപ്പെരുന്നാള് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് പിന്നെ ഹിന്ദുക്കൾക്കാണെങ്കിൽ ഞാൻ പറയുമ്പോൾ എന്താ പറയുക ഉത്സവങ്ങള് കാര്യങ്ങള് ഇപ്പോൾ വിഷു ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് സെലിബ്രേഷൻസ് അവർക്കും വരുന്നുണ്ട് മുസ്ലിംസിനു ആണെങ്കിൽ അവർക്കും ഉണ്ട് കുറെ കാര്യങ്ങള് പിന്നെ നബിദിനം ഉണ്ട് പിന്നെ ഈദ് മുബാറക്ക് മുബാറക്ക് കാര്യങ്ങള് അങ്ങനെ ഒരുപാട് എന്താ പറയുക പെരുന്നാളും കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ലരീതിക്കുതന്നെ നമ്മുടെ ജില്ലകളില് ജില്ലേല് അവരുട് മത ഓരോ മതക്കാർക്കും അവർടെതായ എന്താ പറയാ കാര്യങ്ങള് അതായത് ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റൊരു അഭിപ്രായം